ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഒരു പ്രോഡക്റ്റായിരുന്നു ജീൻസ് ഞാൻ ബ്ലൂ ജീൻസ് ആയിരുന്നു ചെയ്തത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു അത്യാവശ്യം നല്ല ചീപ്പ് ആയിരുന്നു മീൻസ് റേറ്റ് കമ്മി തന്നെയായിരുന്നു നമുക്ക് സാധാരണ ഒരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് തന്നെയായിരുന്നു ഓഫ്ലൈനിൽ നല്ല വില കൂടുതലെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ് എനിക്ക് അത്യാവശ്യം നന്നായി ഇഷ്ടപ്പെട്ടു കളറും കളറും ഞാൻ ഉദ്ദേശിച്ച അതേ കളർ തന്നെയായിരുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് സൈസും എല്ലാം കറക്റ്റ് തന്നെയായിരുന്നു വാഷ് ചെയ്യണ സമയത്തും കളറൊന്നും അങ്ങനെ പോകുന്നൊന്നും ഉണ്ടായിരുന്നില്ല നല്ല മെറ്റീരിയൽ ആയിരുന്നു നല്ല സോഫ്റ്റായിരുന്നു നമുക്ക് നല്ല കംഫോര്ട്ടബിളാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അഫോർഡബിളാണ്